കായികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരിക്ക് പറ്റുന്നത് ഏറ്റവും വലിയൊരു ടെൻഷൻ തന്നെയാണ് അപ്പം അങ്ങനുള്ള സമയങ്ങളിൽ നമ്മൾ അതിൻറ്റേതായുള്ള ചികിത്സകൾ കൊടുക്കാറുണ്ട് പിന്നെ അടുത്ത്തന്നെ പ്രഥമിക ആരോഗ്യ കേന്ദ്രമുള്ളത് കൊണ്ട്തന്നെ ഇവിടെ എന്ത് പരിക്ക് പറ്റിയാലും അവിടെക്കാണ് കൊണ്ട് പോകാറ് പിന്നെ അത്ര പരിക്ക് പറ്റുന്ന രീതിയിലാരും കളിക്കാറും ഇല്ല എന്ത് കളിയാണെങ്കിലും നമ്മൾ നമ്മൾ ഹെൽത്ത് നോക്കിയിട്ട് തന്നെയാണ് കളിക്കാറ് അതാണേറ്റവും നല്ലത് അത്രേ അത്ര കണ്ട് ബോറായി കളിക്കാനുള്ള അവസരങ്ങളും വരാറില്ല നമ്മൾ ജസ്റ്റ് കുറച്ച് സമയം പോകാനും കുറച്ച് ചിരിക്കാനക്കെയായിട്ടാണ് കളിക്കാറ് അപ്പം പിന്നെ അതിനുള്ള തന്ന പിന്നെ ടൂർണ്ണമെൻറ്റുകളും മറ്റ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ അതിൻ്റെതായ ആൾക്കാർ സങ്കടത്തി കയറി ആംബുലൻസ് അല്ലെങ്കിൽ ഫീൽഡ് സപ്പോർട്ടായിട്ട് ഡോക്ടർമാർ ഒക്കെ അയക്കാറുണ്ട് അതുകൊണ്ട് അതും ഒരു വിഷയമുള്ള കാര്യമല്ല വലിയ വലിയ പരിക്കുകൾ വരണെങ്കിൽ നമുക്ക് അടുത്തുള്ള വേറെ വേറെ വലിയ വലിയ ഹോസ്പിറ്റലേക്ക് കൊണ്ട് പോകാനുള്ള സൗകര്യങ്ങലും സജ്ജമായിട്ടുള്ളത് കൊണ്ട് തന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല നമ്മുടെ നാട്ടീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് അതിൽ രണ്ടെണ്ണത്തിൽ തന്നെ വളരെ അധികം വളരെ അധികം സജ്ജീകരണങ്ങളുണ്ട് എന്ത് പറ്റിയാലും അവർക്കത് ഡീൽ ചെയ്യാനുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട് പിന്നെ ഒരു പരിക്ക് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടന്ന് നമ്മുടെ അടുത്തുള്ള സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാഥമിക ആരോഗ്യകേന്ദ്രങ്ങളിൽ തന്നെയാണ് ആദ്യം തന്നെ എത്താറ് അത് സർക്കാരിൻ്റെ തന്നെ ആയത് കൊണ്ട് പൈസയും വാങ്ങാറില്ല പിന്നെ അടുത്ത് തന്നെ വലിയ വലിയ ഹോസ്പിറ്റലുകളൊണ്ടൊരു അഞ്ച് കിലോമീറ്ററിന് അപ്പുറത്ത് തന്നെ വലിയൊരു ഹോസ്പിറ്റലുണ്ട് പിന്നെ ഒരു പന്ത്രണ്ട് കിലോമീറ്ററപ്പുറത്ത് വേറെ വലിയ ഹോസ്പിറ്റലുണ്ട് അതുകൊണ്ട് ഹോസ്പിറ്റലുകളുടെ എണ്ണം എണ്ണവും കൂടുതലാണ് ഡിസ്റ്റൻറ്റും കുറവാണ് വളരെ നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് ഹോസ്പിറ്റലുകളും സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കളിക്കിടയിൽ പറ്റുന്ന പരിക്കുകൾക്ക് വലിയ അങ്ങ് പ്രശ്നങ്ങളിതുവരെ ഉണ്ടായിട്ടില്ല വലിയ ഒരു പരുക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊരു നാല് അഞ്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ മാറി വരുന്നതാണ് പറ്റീട്ടുള്ളു അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു വിഷയം ആക്കാത്തത് ഒരു കാര്യമാണ് പിന്നെ കളിക്കുമ്പോൾ തന്നെ നമ്മൾ ഒക്കെ നോക്കീട്ടാണ് കളിക്കാറ് എന്ന് വെച്ചാൽ പരിക്ക് പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യാറ് ഇനി അഥവാ പരിക്ക് പറ്റിയാൽ തന്നെ ഒരു കുഴപ്പോം ഇല്ല അടുത്ത് തന്നെ സ്ഥലങ്ങളുള്ളത് കൊണ്ട് ഒരു കുഴപ്പോം ഉണ്ടാകാറില്ല